കോള റെസ്റ്റൊൻ്റല്ലെ റെസ്റ്റോറൻ്റല്ലെ പിന്നെ അവിടെ എന്നാ ഉണ്ട് സ്പെഷ്യല് പിന്നെ കരിമീൻ മപ്പാസിനക്കെ എത്രയാണ് റേയ്റ്റെത്രയാണ് നൂറ് അപ്പം പിന്നെ വേറെ എന്നാ ഉണ്ട് സ്പെഷ്യലായിട്ട്

പിന്നെ ബിരിയാണി ഉണ്ടോ

ഏതൊക്കെ ഉണ്ട് ആ ആ അന്നരപ്പോൾ നമുക്ക് ഒരു ഒരു കരിമീൻ ഫ്രൈയ്യും ഒരു കരിമീൻ പപ്പാസും പിന്നെ കരിമീൻ മുളകും തേങ്ങ അരച്ച് കറി വെച്ചതും കൂടെ വേണം പിന്നെ ഒരു ഒരു പായ്ക്കറ്റ് ബിരിയാണി ഒരു ഒരു പായ്ക്കറ്റ് കുഴിമന്തി മതി കേട്ടൊ കുഴിമന്തി ആ മത്തി ഫ്രൈ ഉണ്ടോ മത്തി ഫ്രൈയ്യുണ്ടോ അ എന്നാലൊരു ഒരു പ്ലേറ്റ് മത്തി പറ്റിച്ചതും പിന്നെ ഇത് ഒരു പായ് ഒരു പായ്ക്കറ്റ് കുഴിമന്തി അ പിന്നെ ഈ കരിമീങ്കറീങ്കൂടെ ആ എന്നാൽ കൊടുത്ത് വിടണം അ മതി ഒരു പന്ത്രണ്ടര ആകുമ്പോൾ കൊടുത്ത് വിട്ടാൽ മതി അ ഞങ്ങൾക്കൊരു ഗസ്റ്റൊണ്ടെ അതിന് കൊടുക്കാമ്മേണ്ടിയാണ് ആ സ്ഥലവേതാന്നറിയാവൊ ഞങ്ങൾ നിങ്ങടെ ഏദൻ തോട്ടത്തിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ അ അ ആ ആ ബില്ല് കൊടുത്ത് വിടണം ആ എന്നാൽ ശരിയ

മത്തി മത്തി പറ്റിച്ചത് അ അ ആ ഇല്ല അ

കൃത്യവായിട്ട് താമസിക്കാതെ വേഗം കൊടുക്കുക കൊടുത്ത് വിടണം

കരിമീൻ പപ്പാസ് കരിമീൻ റോസ്റ്റെ കരിമീൻ തേങ്ങായും മുളകും അരച്ചത് ആ മത്തി പറ്റിച്ചത് ആ പിന്നെ ഒരു പായ്ക്കറ്റ് കുഴിമന്തി അ ആ ആ പിന്നെ ഒരു പത്ത് പൊറോട്ടയും കൂടെ കൊടുത്തോളൂ അ ഓക്കെ ആ കൊണ്ടത്തരണം ബില്ല് സഹിതം കൊടുത്ത് വിടണം ആ എന്നാൽ മതി ഞാൻ വന്ന് മേടിച്ചോളും ആ ഓക്കെ